ഹലോ അതേ അതേ ഞാൻ

വൺ വീക്ക് വൺ വീക്ക് ഫുൾ വേണം എന്നില്ല ഒരു ഫോർ ഡേയ്സ് ഒക്കെ മതി എങ്ങനെ

ആ ആ ഓക്കെ ഏതായാലും ഞങ്ങൾ വിചാരിച്ചതല്ല ആ ആ അതേ അതേ ഉണ്ടോ ഇവിടെ അ